ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും എൻറ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നൊരു പുസ്തകമാണ് എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന് പറയുന്നത് അതിലതിൽ അതിൽ എൻറ്റെ ഇഷ്ട്ടപ്പെട്ട ഉദ്ധാരിണി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നിട്ടും അവളറിഞ്ഞില്ല ആഴകടലിനെക്കാൾ അഗാതമായിരുന്നു എൻറ്റെ പ്രണയം ഏറ്റവും വലിയ മോഹത്തേക്കാൾ വലുതായിരുന്നു എൻറ്റെ ഇഷ്ടം ഇത് എൻ എൻ മോഹനൻ വളരെ മനോഹരമായി ആ ഒരു പുസ്തകത്തിലിത് എഴുതിയിട്ടുണ്ട് ഇത് ഏകദേശം ആ ബുക്കിൻറ്റെ അവസാന ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത് ഈയൊരു ഉദ്ധാരിണി ഞാനിങ്ങനെ വായിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് വളരെ ഒരു എൻറ്റെ ഹൃദയത്തോട് ഒട്ടും ചേർന്ന് നിൽക്കാത്തൊരു രീതിയിലുള്ള എഴുത്തായിരുന്നു പക്ഷേ വായിച്ച് മുൻമ്പോട്ട് വന്നപ്പോഴെനിക്ക് മനസ്സിലായി ഇത് എനിക്ക് എൻറ്റെ എപ്പോഴത്തെയും എൻറ്റെ വായന വായിക്കുന്ന പുസ്തകങ്ങളിൽ എൻറ്റെ ഹൃദയത്തോട് ചേർത്ത് വെയ്ക്കേണ്ടൊരു പുസ്തകം തന്നെയാണ് ഒരിക്കലെന്ന് പറയുന്ന ഈയൊരു ബുക്ക് എനിക്കതിൽ ഏറ്റവും അർത്ഥവത്തായി തോന്നിയത് കുറച്ച്കൂടെ എന്താ പറയുക എൻറ്റെ ഞാൻ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുവാണെന്നോ പറഞ്ഞല്ലോ കാരണം എൻറ്റെ ഒരു പ്രിയ സുഹൃത്ത് എനിക്ക് എന്നോട് ഈ ബുക്ക് വായിക്കാൻ പറയുകയും ഞാൻ ഒരു കാരണത്താൽ ഞാൻ വായിക്കുകയും ചെയ്തൊരു ബൂക്കാണ് ആ സുഹൃത്തിൻറ്റെ ഞാനുമായിട്ടുള്ള ഒരു ആത്മബന്ധം കൊണ്ടു തന്നെ എനിക്ക് ബുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് പലതും പല പറയാതെ പോയ പല ഇഷ്ടങ്ങളെയും ഇത് കൂടുതൽ ആ ഒരു ആ ഒരു ആ ഒരു എന്താ പറയുക ഫീലിംഗ് നമ്മുടെ മുമ്പിൽ നിർത്തി അങ്ങനെ അത്രേം ഒരു നാല് വരിയാണെങ്കിലും ആ നാല് വരി തന്നെയുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ പറയാതെ പോയ പ്രണയത്തിൻറ്റെ ആ ഒരു വികാരം ഈ ഒരു നാല് വരിയിൽ വളരെ വൃത്തിയായിട്ട് തന്നെ എൻ മോഹനൻ എഴുതിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ കാരണം എപ്പം ആര് എന്നോടേറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഭാഗം ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചൂണ്ടിക്കാട്ടാൻ യു ഹാവ് ലവ് ഹേർ വിത്ത് ആൻ എവർ ലാസ്റ്റിംഗ് ലൗ എന്നൊക്കെ പറഞ്ഞ് അവസാന ഭാഗമൊക്കെ ആകുമ്പോഴ്ത്തേക്കും അങ്ങനെ വരുന്നുണ്ട് ഞാൻ എന്നിട്ടും അവളെ പോകാൻ അനുവദിച്ചു എന്നെ സ്നേഹം കൊണ്ട് പരിചരിച്ച ആ പെൺകുട്ടി എന്നും നിനക്ക് നല്ലത് വരട്ടെ എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് എൻ മോഹനൻ ആ ബുക്ക് കൺക്ലൂഡ് ചെയ്യുന്നത് അത് നിർത്തുന്നത് അങ്ങനെയാണ് അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ വേറൊരാൾക്ക് എന്താ പറയുക സജസ്റ്റ ചെയ്യുന്നൊരു ബുക്കായിരിക്കും ഒരിക്കൽ എൻ മോഹനൻ എഴുതിയ ഒരിക്കൽ എന്ന് പറയുന്ന ഈയൊരു ബുക്ക് പിന്നെ എൻ ഞാനുമായിട്ട് ബന്ധപ്പെട്ടത് എങ്ങനയാന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഈയൊരു ഭാഗം എൻറ്റെ പേർസണൽ ജീവിതത്തിൽ ഇത് വളരെ പറയാതെ പോയ പല കാര്യങ്ങളും എനിക്കിത് വായിച്ചപ്പോൾ പറഞ്ഞിരുന്നുവെങ്കിൽ പറഞ്ഞിരുന്നുവെങ്കിൽ എന്ത് നല്ലതായിരുന്നു എന്ന് ചിന്തിച്ചിട്ടുളെളാരു പല മുഹൂർത്തങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പം ഈയൊരു ഭാഗം ഈയൊരു നാല് വരി എന്നെ വളരെ അധികം എന്താ പറയുക എന്താ പറയുക പല കാര്യങ്ങളും എന്നെ ഓർമിപ്പിച്ചതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്